സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നല്കാനുള്ള ഒരു ഉപദേശമെന്ന് പറഞ്ഞാൽ ഒന്ന് ആ വ്യക്തി സത്യസന്ധനായിരിക്കണം എന്നുള്ളതാണ് ആയിന്റാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സത്യസന്ധത തന്നെയാണ് ഏറ്റോം പ്രധാനം പിന്നെ നമുക്ക് അതിന്റാത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും അതിനെപ്പറ്റി നമുക്ക് തുടങ്ങാൻ പോവുന്ന ബിസിനസിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോവുന്നത് അത് നിയമാനസൃതമായിട്ടുള്ള ബിസിനസാണോ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ അത്യാവശ്യം നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാഫിനെ നിർത്തുകയാണോ അല്ലേ നമ്മൾ തന്നെ സ്വയം ചെയ്യുകയാണോ അപ്പം നമ്മൾ ഒരു സ്റ്റാഫിനെ നിർത്തുകയാണ് എങ്കിൽ നമുക്ക് അത് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണം നമുക്ക് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയണം പിന്നെ അടുത്ത കേസ് നമുക്ക് എല്ലാ പറ്റി അറിവുണ്ട് അതായ നീമ് നിയമപരമായ കാര്യങ്ങളെപ്പറ്റി ബിസിനസ്പരമായ കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടാവുക എന്നത് തന്നെയാണ് അയിന്റാത്ത് ഏറ്റം പ്രധാനക്കെന്ന അറിവുണ്ടായിരിക്കണം പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടൊരു കാര്യം കസ്റ്റമറ് തന്നെയാണ് എപ്പോഴും രാജാവ് ഒരു ബിസിനസിലും ഉപഭോക്താവിനെ നമ്മൾ പ്രീതിപ്പെടുത്താതെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടോവാൻ പറ്റില്ല എന്നൊള്ളോണ്ടാണ് സത്യം അപ്പം നമ്മൾ ആരൊക്കെയോ ആയിക്കോട്ടെ നമ്മൾ ഒരു ബിസ് നമ്മൾ ആരും ആയിക്കോട്ടെ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു മടുപ്പുമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ എന്ത് സേവനമാണോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റം കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ പരമാവധി എപ്പോഴും ഒരു ബിസിനസ് ഒരേ രീതീ ചിന്തിക്കുന്ന ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അത് ചെയ്യുകയായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഗെവൺമെന്റിൻ്റെ ലൈസൻസ് അങ്ങനെ നിയമാനസൃതമായി നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് മാത്രമേ എപ്പോഴും നമ്മളൊരു ബിസിനസിലേക്ക് പോകാവൊള്ളൂ അല്ലെങ്കിൽ അത് പിന്നീട് പല പല പ്രശ്നങ്ങൾ വരും ബുദ്ധിമുട്ട് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത് അത് ഭയങ്കരമായി നമ്മളെ പ്രശ്നങ്ങളിലേക്ക് കടന്ന് വരും അതുകൊണ്ട് തന്നെ എല്ലായിപ്പോഴും പിന്നെ എപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് സേവനമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സാധനമാണ് കൊടുക്കുന്നത് എങ്കാണങ്കിലും നമ്മൾ ഒരേ സമയം തന്നെ എപ്പോഴും ഒരു ബിസിനസ് സ്ഥാമനത്തിനൊരു കൃത്യമായ ഒരു ടൈം ഉണ്ടായിരിക്കണം നമ്മൾ ഒരേ സമയം തന്നെ അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ സേവനം കൊടുക്കാൻ ഉദേശിക്കുന്നത് ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ടത് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഒരു കടയാണങ്കിലോ ഇന്ന് തുറന്നു നാളെ തുറക്കുക വരിക പിന്നെ മൂന്ന് ദിവസം ഉച്ച കഴിഞ്ഞ് തുറക്കുക അങ്ങനെ ഒക്കെ വരുമ്പത്തേക്ക് നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കും അപ്പോഴെപ്പോഴും ആ ഒരു കൃത്യമായൊരു ടൈം മാനേജ്മെന്റ് പാലിക്കാന്നുള്ളത് ഇതിന്റാത്ത് കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ സർക്കാര്ന് കൊടുക്കാനും ഉള്ള ടാക്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക എല്ലാം നമ്മൾ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നാളെകളിലൊരു പ്രശ്നം വന്നാല് പ്രശ്നം വരാൻ ബിസിനസാവ്മ്പ എപ്പോഴും പ്രശ്നങ്ങളൊണ്ടാവാം നാളകളിലൊരു ബിസ്ന പ്രശ്നം വന്നാലും നമുക്ക് അത് കൃത്യമായിട്ടാണ് നമ്മുടെ ഭാഗം കറക്റ്റാണെങ്കിൽ നമ്മൾ അത് ഒരു തരത്തിലുള് പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല പിന്നെ നമ്മൾ ലൈസൻസെല്ലാം കൊടുക്കുക പിന്നെ ജനങ്ങളോടും നാടിനോടും നമ്മൾ പ്രതിബദ്ധതയായിട്ടുള്ളവർക്ക് എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ ഇത്തരം ബിസിനസ് തുടങ്ങുന്ന കേസുകളിൽ പിന്നെ എപ്പോഴും ഒരു ഒന്ന് ഒരേ ചിന്താഗതിക്കാരോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ തുടങ്ങുന്നത് ആയിരിക്കും എപ്പോഴും നല്ലത് അപ്പം അതിനുള്ള പണവും മറ്റും സംവിധാനങ്ങളും അപ്പം ബാങ്ക് ലോണ്കളും മറ്റും അതുപോലെ ഒക്കെ എടുക്കുമ്പോൾ ഈ ബിസിനസിൽ നിന്ന് ഇതെടുത്താൽ നമുക്ക് ലാഭകരമായിരിക്കുവോ അല്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാവോ ഈ വക കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് മാത്രമേ നമ്മൾ അതിനൊള്ള ഫണ്ട് കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അനാവശ്യമായിട്ട് വേണ്ടാത്ത ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നതും ഇതിന്റാത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്